കുട്ടിക്കാലം മുതലെനിക്ക് നൃത്തം ചെയ്യാൻ വളരെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ കൂടുതലും വെസ്റ്റേൺ ടൈപ്പ് ഡാൻസാണ് കൂടുതലും ഇവിടെ കളിക്കാറ് പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെയാണ് ഞാൻ കൂടുതലും കളിക്കാറ് അപ്പോൾ അവരുടെ കൂടെ കൂടുതലും സമയം സ്പെൻഡ് ചെയ്യാം പിന്നെ എൻ്റെ മൈൻഡ് റിലി റിലീഫ് ആകുവൊക്കെ ചെയ്യും പിന്നെ നമ്മള് ഓരോ പാട്ടിനനുസരിച്ച് നമ്മളതിനനുസരിച്ച് ഡാൻസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നത് പിന്നെ നമ്മളുടെ ബോഡിക്കായാലും അതൊരു വ്യായാമവായിട്ടാണ് പോകുന്നത് നമക്കൊരു എന്താ പറയുക ഒരു സന്തോഷവും പിന്നെ ഒരു നമ്മളൊക്കെ ഫാറ്റ് വണ്ണമൊക്കെയുള്ളൊരു കുട്ടിയാണെൽ നമ്മള് ക്ഷീണിക്കും അങ്ങനൊക്കെ ആയിരിക്കും നമ്മള് ഡാൻസ് കളിക്കുമ്പോൾ ഉണ്ടാവുക പിന്നെന്താ ഡാൻസ് എന്ന് പറയുമ്പോൾ നമ് എല്ലാവരും എല്ലാ വ്യക്തികളെല്ലാവരും നമുക്ക് നമ്മളെ മാത്രം ഫേയ് ഫോക്കസ് ചെയ്ത് നമ്മുടെ ഡാൻസ് നമ്മുടെ ഓരോ സ്റ്റെപ്പുകളും എല്ലാം അവരത് കണ്ട് പിന്നീട് വേറൊരു ഡാൻസ് കളിക്കുമ്പോൾ നമ്മുടെ ഓരോ സ്റ്റെപ്പുകളെടുക്കുമ്പഴും പിന്നെ നമ്മളെ വന്ന് ആൾക്കാര് വന്ന് അപ്രീഷിയേറ്റ് ചെയ്യും നല്ല നൃത്തമാണ് ചെയ്തത് അങ്ങനെ ഒക്കെ പറയുമ്പോൾ നമ്മുടെ മനസിന് തന്നെ ഒരു സന്തോഷമായിരിക്കും ഉണ്ടാവുക പിന്നെ നമ്മള് ഓരോ അത് കണ്ട് പിന്നീട് വേറൊരു പരിപാടി വരുമ്പോൾ അവര് ആൾക്കാര് നിങ്ങളവിടെ വന്ന് ഡാൻസ് ചെയ്യണം നിങ്ങളുടെ ഡാൻസ് നല്ലതായിരുന്നു ഓ ഡാൻസ് പഠിക്കാൻ പോയിട്ടുണ്ടോ അങ്ങനെ ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷാണുണ്ടാവുന്നത് കൂടുതൽ ഏ സന്തോഷം നമ്മുടെ മൈൻഡ് നമ്മളതിനെപ്പറ്റി നമുക്ക് വേറെ നമ്മുടെ ഫാമിലി മറ്റേഴ്സാണെങ്കിലും അല്ലാണ്ടെന്തേലുമൊക്കെ ഉണ്ടെങ്കിലും നമ്മള് ഡാൻസ് കളിക്കുമ്പോളൊക്കെ നമ്മള് വേറൊന്നും ചിന്തിക്കില്ല ഫ്രണ്ട്സിന്റെ കൂടെ ആകുമ്പോൾ നമ്മള് പ്രത്യേകിച്ച് നമ്മളതിനെപ്പറ്റിയൊന്നും ചിന്തിക്കില്ല നമ്മൾക്ക് ആ പാട്ടിനനുസരിച്ച് നമ്മളതിനനുസരിച്ച് ഡാൻസ് ചെയ്യുകയും നമ്മള് എന്താ പറയുക നമുക്കൊരു മനസിനൊരു കൂളിംഗ് തന്നെയുണ്ടാകും